ഇന്ത്യയുടെ ചരിത്രം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഏവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്താ വച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഇന്ത്യയും ഇന്ത്യയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളും ഇപ്പം നമുക്ക് ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമുക്ക് താഴ് ജാതിക്കാർക്ക് പുറത്തിറങ്ങാനോ അങ്ങനെയുള്ള അവകാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനങ്ങൾ എടുക്കാനോ അങ്ങനെയുള്ള ഒരിതും ഉണ്ടായിരുന്നില്ല നേതാക്കന്മാർക്ക് മാത്രമേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു പിന്നെ മഹാത്മ ഗാന്ധിയെ പോലുള്ള സ്വാതന്ത്ര്യസമര സേനാനികളൊക്കെ ഇന്ന് നമുക്ക് ആ സ്വാതന്ത്ര്യം നേടിത്തന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ സ്വന്തമായ തീരുമാനങ്ങളോ അഭിപ്രായങ്ങളൊക്കെ പറയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് പറയാൻ പറ്റുന്നുണ്ട് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട നേതാക്കളിൽ ഒരാൾ മഹാത്മാഗാന്ധി തന്നെയാണ്